ഇപ്പോൾ ഞാൻ ചെയ്തത് റെഡി ആയിട്ടില്ലെങ്കിൽ ഞാനതിൽ വേറെ എന്തെങ്കിലും ഇപ്പോൾ ഞാൻ ഞാനൊരു ചിക്കൻ കറിയാണ് വെച്ചതെങ്കിൽ ചിക്കൻ കറിന്റെ ഒരു ടേസ്റ്റോ കാര്യങ്ങളോ വന്നിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ എന്തെങ്കിലും വീഡിയോസ് കണ്ടുകൊണ്ടാണ് വെച്ചതെന്ന് വെച്ചോ അപ്പോൾ അതിൽ ചെയ്തതുപോലെ എനിക്ക് അതിന്റെ ഒരു ടേസ്റ്റ് കാര്യങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ഞാൻ എന്തുചെയ്യും പഴയ നമ്മൾ ആദ്യം വയ്ക്കാറുള്ള എന്തെങ്കിലും പൊടിക്കൈകൾ അങ്ങനെ ഇപ്പോൾ എരിവ് കൂടിപ്പോയി എരിവ് കൂടിക്കഴിഞ്ഞാൽ പൊടിക്കൈകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ടും ചെയ്യുന്നത് എന്താണ് വെച്ചു കഴിഞ്ഞാൽ അതിൽ ഈ തേങ്ങ അരച്ച് അരപ്പൊഴിച്ചു കഴിഞ്ഞാൽ കൂടൂതലായിട്ട് നമുക്ക് എരിവ് നിയന്ത്രിക്കാനാവും പിന്നെ ഉപ്പ് കൂടിയാലും ഇതുതന്നെ ആണ് ചെയ്യുക പിന്നെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് അത് ഈ ചിക്കൻ കറിന്റെ കൂടെ ആണെങ്കിൽ ഉരുളക്കിഴങ്ങ് ഇട്ടുകഴിഞ്ഞാൽ ഉപ്പ് ഉപ്പ് ആണെങ്കിലും എരിവാണങ്കിലും അത് വലിച്ചെടുത്തോളും അപ്പം നല്ല രീതിയിലുള്ള ഉപ്പ് എരിവ് ഇതൊക്കെ കുറഞ്ഞോളും ഇങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട് അപ്പം ശരിയാ ഇങ്ങനെ ശരിയായിട്ട് അതായത് എരിവ് കൂടുതലോ ഉപ്പ് കൂടുതലോ ഒക്കെ ആയിട്ട് വരുവാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി അപ്പം നല്ല രീതിയിലുള്ള കറിക്ക് മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും